ഞാനെന്നും പോകുന്ന ഹോട്ടലിൽ തന്നെയാണ് പോയത് അതൊരു ഫേമസ് ഹോട്ടൽ ആണ് അത് എന്താണ് നമുക്ക് കാണുമ്പോഴേ നമ്മളെ അട്രാക്റ്റീവ് ആയി തോന്നുന്നതാണത് നല്ല ക്ലീൻ ഉള്ള ഒരു ഹോട്ടൽ ആണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെയിരിക്കും എന്താണ് എന്ത് സാധനം ഓർഡർ ചെയ്താലും നല്ല ടേസ്റ്റ് ആണ് അവിടെ വിലയും നമ്മൾക്ക് അനുസരിച്ചുള്ള വില തന്നെയാണ് കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് തരുന്നത് വെറൈറ്റി വെറൈറ്റി ഫുഡ്സൊക്കെ നമുക്ക് തരാറുണ്ട് നല്ല എന്താണ് നമുക്ക് ഉള്ളിൽ പോകുമ്പോഴേ ഇരുന്നു ഫുഡ് കഴിക്കാനൊക്കെ നല്ല വിധത്തിലാണ് അവരത് അത് ഒരുക്കി വെച്ചിരിക്കണത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വെച്ചിരിക്കണത് പിന്നെ ഞാൻ അവിടുന്ന് എനിക്കിഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് അഞ്ച് മിനിറ്റിൽ അവരത് കൊണ്ടുവന്നു അതുകൊണ്ട് വരണ അവരെ ആ സെർവ് ചെയ്യണ അവരായാലും നമ്മുടെ അടുത്ത് നല്ല രീതിക്ക് തന്നെയാണ് പെരുമാറിയതും ടൈമിന് കൊണ്ടുവരുകേയും എല്ലാം ചെയ്തു നല്ല രീതിക്ക് പിന്നെ അവർ കൊണ്ടുവന്ന് തന്നു എന്താണ് ബിരിയാണി കഴിച്ചതിൽ ടേസ്റ്റ് ഒന്നും പറയേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റിലാണ് എരിവ് ചിക്കൻ ആയാലും എരിവൊക്കെ നല്ല പാകത്തിലിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആയി നല്ല രീതിക്ക് തന്നെയാണ് അവർ വെച്ച് തന്നത് എന്താണ് ക്വാണ്ടിറ്റിവൈസ് നോക്കുവാണേൽ നല്ല നിറയെ നമുക്ക് എന്താണ് നമുക്ക് ഒരാൾ തിന്നാൻ തീരാത്ത അത്ര അത് വെച്ചിട്ടുണ്ടായിരുന്നു നിറയെ ഉണ്ടായിരുന്നു വളരെ ഇഷ്ടപ്പെട്ടു അത് തിന്നപ്പോൾ പിന്നെ അവരിൻ്റെ എന്താണ് മനോഹരമായി ഡെക്കറേഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാം കാണുമ്പോൾ നല്ല ഒരു വ്യൂ ആണ് അവിടുന്ന് കിട്ടിയത് നല്ല ഒരു എന്താണ് കാമായ ഒരു പ്ലേസ് ആയിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു ആ ഹോട്ടൽ പിന്നെ ഞാൻ എന്നും പോവാറുള്ളതു കൊണ്ട് എനിക്കൊരു ഇത് തോന്നിയില്ല ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത് എല്ലാവർക്കും അവിടെ ഇഷ്ടപ്പെടുകയും എല്ലാം ചെയ്തു ഭയങ്കര നന്നായിരുന്നു പിന്നെ അവിടെ കൂടുതൽ നമുക്ക് പോസിറ്റീവ് തന്നെയാണ് കിട്ടിയത് നെഗറ്റീവ് ആയി പറയുകയാണെന്നുണ്ടെങ്കി ൽ അവിടുന്ന് ആ കൈ കഴുകാൻ പോവണ അവിടെ മാത്രം ചെറുതായി ഒരു വൃത്തികേട് പോലെ തോന്നി അത്രതന്നെ തോന്നിയുള്ളൂ വേറെ ഒരു ഇതുകൊണ്ടും ഒന്നു ഇല്ല നല്ല രീതിക്ക് കഴിച്ചിറങ്ങാൻ പറ്റിയ ഒരു ഇതാണ് വളരെ ഇഷ്ടപ്പെട്ടു